എൻ്റെ ജോലിയിൽ ഞാൻ അത്യാവശ്യം കോൺസെൻട്രേഷൻ ചെയ്താണ് നിൽക്കുന്നത് അതെൻ്റെ മേഖലയിൽ ഏകദേശം ഇവിടെ ഈ ഭാഗത്തു നിന്ന് അത്യാവശ്യം പണികളും കാര്യങ്ങളും ഇപ്പോൾ തന്നെയുണ്ട് എന്നാലും അതിനെക്കുറിച്ച് കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യണമെന്നും ഇനിയും ആഗ്രഹമുണ്ട് ഒന്നുംകൂടി വിപുലമാക്കി ഒരുവിധം ആൾക്കാരൊക്കെ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞും പണികൾ തരാനും അതുപോലെതന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന വർക്കേഴ്സിൻ്റെ നല്ല രീതിയിലുള്ളൊരു മാറ്റങ്ങൾ സൃഷ്ടിക്കാനും കൂലിയിലാണെങ്കിലും അവർക്ക് വേണ്ട എന്തൊക്കെയാണെന്നും അതൊക്കെ ചെയ്തു കൊടുക്കാനും ഞാൻ പലതും ശ്രമിക്കാറുണ്ട് അപ്പോൾ അതുപോലെതന്നെ എൻ്റെയൊപ്പം ഉള്ള പണിക്കാരാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് അവരും കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണത് അതുകൊണ്ടു തന്നെ അത്യാവശ്യം നല്ല രീതിയിൽതന്നെ ഇപ്പോഴും പോകുന്നുമുണ്ട് ഇനി അത് മെച്ചപ്പെടുത്താനും ഞാൻ നോക്കുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടി എൻ്റെ കൂടെയുള്ള പണിക്കാരും അതു നോക്കുന്നുണ്ട് അവരും നല്ല രീതിയിൽ തന്നെയാണ് എൻ്റടുത്ത് ചെയ്യുന്നതും പണിയെടുക്കുന്നതും ഓരോ സൈറ്റിൽ അവർ തന്നെ ആണ് എനിക്ക് വേണ്ടതെന്തും അവർ ചെയ്തു തരുന്നുണ്ട് അതുപോലെതന്നെ നല്ല രീതിയിൽ തന്നെ അവർ പണിയെടുക്കുന്നുമുണ്ട് അതുപോലെ നല്ല വർക്കുകൾ കിട്ടുന്നുമുണ്ട് ആ വർക്കുകൾ നല്ല രീതിയിൽതന്നെ ചെയ്തു കൊടുക്കുന്നുമുണ്ട് അതുകൊണ്ടു തന്നെ ഇപ്പോൾത്തന്നെ ഈ പറയുന്ന എല്ലാ ആൾക്കാരും നല്ല ഒരു അഭിപ്രായമാണ് ഇപ്പോൾ എന്നെക്കുറിച്ച് പറഞ്ഞു വരുന്നത്